എന്റെ ഏറ്റവും വലിയ ശക്തിയെന്നു പറയുന്നത് എന്റെ ഹസ്ബന്റും എന്റെ മക്കളും എന്നോട് കൂടെ ഉള്ളതാണ് അവരുള്ളപ്പോൾ എന്തു കാര്യവും ചെയ്യാനും അല്ലെങ്കിൽ ഒരു കാര്യം എന്നിൽ ഏല്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വ്യക്തമായും ശക്തിയായും മുന്നോട്ട് കൂടി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു അഭിപ്രായവും ചോദിച്ചിട്ട് അതെനിക്ക് ചെയ്യാനുള്ള വലിയൊരു ശക്തിയാണ് എന്റെ ഹസ്ബന്റും എന്റെ മക്കളും എന്നാൽ എന്റെ കൂടെ അവരില്ലാത്ത പക്ഷം എനിക്കിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ മടിയും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ കൃത്യനിഷ്ഠതയും വ്യക്തവും അല്ലാതാവുകയും ചെയ്യുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ മാതാപിതാക്കളും എന്റെ കൂടെ ഉള്ളപ്പോൾ എന്റെ ഏറ്റവും വലിയ ശക്തിയാണ് എന്റെ അച്ഛൻ എന്റെ അമ്മ പല ബലഹീനതകളിലും അവർക്ക് അവരെന്നിൽ എന്നോട് കൂടെ നിൽക്കുമ്പോൾ ഞാൻ വലിയൊരു ആളായി അല്ലെങ്കിൽ എന്റെ ഞാൻ എന്നിലുള്ള കഴിവുകൾ നല്ല അനുസരണം അല്ലെങ്കിൽ നല്ല വൃത്തിയോട് കൂടി നല്ല ക്രമത്തോട് കൂടി ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അവരില്ലാത്ത പക്ഷം ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും അത് മോശമായിക്കൊള്ളാം അല്ലെങ്കിലത് പൂർണ്ണതയില്ലാത്ത രൂപത്തിൽ ആകാനും സാധ്യതയുള്ളതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്